എനിക്ക് ഈ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട കളിക്കാരെന്നു വച്ചു കഴിഞ്ഞാൽ ഈ ഫുട്ബോള് താരം മെസ്സി ആണ് മെസ്സി എന്നു വച്ചു കഴിഞ്ഞാൽ കാണാനും നല്ല രസമാണ് അതേപോലെ ഫുട്ബോള് കളിക്കുമ്പം ഓരോ കളി കളിമ്പോഴും ഓരോ ഗോൾ അടിക്കുമ്പം ഞാൻ തുള്ളിച്ചാടും നല്ല രസമാണ് അത് ഞാനും ഫുട്ബോൾ അങ്ങനെ കളിക്കാറാണ് എനിക്ക് സംഭവം ഇഷ്ടമാണ് ഞങ്ങളെന്നും പോയി ഫുട്ബോള് കളിക്കാറുണ്ട് അതിൽ കോർട്ട് ബുക്ക് ചെയ്തിട്ടാണേലും ടെറഫ് പോയിട്ടാണെങ്കിൽ നമ്മൾ ഫുട്ബോൾ കളിക്കാറുണ്ട് പിന്നെ ഞാൻ മെസ്സിനെയൊക്കെ നേരിട്ട് കാണുകയാണെങ്കിൽ എന്ന് വച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുക ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുക പറ്റുമോ എന്നാണ് ചോദിച്ചിട്ട് ആദ്യം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കെട്ടിപ്പിടിച്ചു ഇതൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ പിന്നെ ചോദിക്കും കേരളത്തിലേക്ക് വരുന്നു എന്നു ചോദിക്കും അപ്പോൾ അടുത്തത് കേരളത്തിലേക്ക് വരുമെന്നൊക്കെ പറയുമായിരിക്കും നമുക്ക് മെസ്സി എന്നു വച്ചാൽ ജീവനാണ് മെസ്സി നല്ല ഒരു ഇതാണ് മെസ്സിൻ്റെ വ്യയാമങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും എങ്ങനെയാണ് ഇതൊക്കെ വന്നത് ഞാൻ ചോദിക്കുക എങ്ങനെയാണ് മെസ്സി കളിയിലേക്ക് എത്തിയത് അതുപോലെ എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയത് എങ്ങനെയാണ് ഫുട്ബോള് കളിക്കാൻ പഠിച്ചത് അങ്ങനത്തെ കാര്യങ്ങളും നമ്മളെയൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മെസ്സിനോട് കാര്യങ്ങൾ അന്വേഷിക്കുക